ഭക്ഷണം പാചകം ചെയ്യാന്ന് പറഞ്ഞാല് അതൊര് കലയാണ് അത് ചിലപ്പോൾ നമുക്ക് നല്ലൊരവസ്തയാവും ആ ഒര് സമയത്ത് നമ്മളത് ആസ്വദിച്ച് എല്ലാ ചേരുവകളും ചേര്ത്ത് സമയം എടുത്ത് നല്ല രീതിയിൽ പാചകം ചെയ്ത് അതെല്ലാവർക്കും പിന്നെ വിളമ്പി കൊടുത്ത് അവരോടതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു രീതിയില് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്ക് ചില സമയങ്ങളില് നമുക്ക് വല്ല ധൃതിയുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും വേഗത്തില് എന്താ തയ്യാറാക്കാന് പറ്റുന്നത് എന്ന് വെച്ചാലത് വേഗത്തില് തയ്യാറാക്കി കൊടുക്കും പക്ഷെ അതില് എല്ലാവർക്കും ഒരുപോലെ ഉള്ള പാചകങ്ങളാവും ചെയ്യുക ഒരാൾ ഒക്കെ എന്ന് പറഞ്ഞാലെങ്ങാണ്ട് പ്രത്യേകിച്ച് ഉപ്പ് മുളക് അങ്ങനെ കൂടുതലിടേണ്ടതൊ കുറവിടേണ്ടതോ ഒന്നുവായിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഞങ്ങളെ സംബദ്ധിച്ച് വന്നിട്ടില്ല പിന്നെന്ന് പറഞ്ഞാല് ചിലരുടെ അഭിപ്രായം ചോദിക്കും ഇന്നേത് ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടത് അത്പോലെ ഞായറ് ഒഴിവ് ദിവസങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും താല്പ്പര്യങ്ങളൊക്കെ മാനിച്ച് കൊണ്ട് അതിന്റെതായ ഇഷ്ടത്തില് ഉള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കും ഉണ്ടാക്കും കൊടുക്കും അങ്ങനെ ചെയ്യും ഉം പിന്നെ ചിലര് പറയും അഭിപ്രായം പറയാറുണ്ട് അതിലിത്തിരി ഉപ്പ് ഏറി മുളക് കൂടി അതിലിത്തിരി മുളക് കുറയ്ക്കണമായിരുന്നു ങേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താല് നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് നമ്മളാ ഭക്ഷണം അതേ രീതിയില് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഉള്ക്കൊണ്ട് അത്പോലെ ആ ഭക്ഷണം നന്നാക്കി ഉണ്ടാക്കാന് ശ്രമിക്കാറുണ്ട്